അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാനും ഇഷ്ടമുണ്ട് പിന്നേ പച്ചമരുന്നാണ് ഞാൻ അധികവും ഉപയോഗിക്കുന്നത് ജലദോഷം വന്നാൽ ചുക്ക് കാപ്പി ഉണ്ടാക്കി കഴിക്കും പിന്നെ തൊണ്ടവേദന വന്നാൽ മഞ്ഞൾ വെള്ളം കുറച്ച് അരിയിട്ടിട്ട് അതൊരു പാര്ന്ന് അത് കുടിക്കും അപ്പോൾ സുഖമാവും അതേപോലെ തന്നെ ജലദോഷത്തിനും എന്താണ് തുളസിൻ്റെ ഇല ചുക്ക് കുരുമുളക് ഒക്കെ കുത്തിയിട്ട് ചതച്ച് അതങ്ങനെ കുടിക്കും അപ്പോൾ ജലദോഷത്തിനും തൊണ്ടവേദനയ്ക്കും കുറേയൊക്കെ മാറ്റം വരും മാറ്റം വരും എന്നല്ല മാറും പിന്നെ അതേ പോലെ തന്നെ കാലുവേദനയ്ക്ക് കൈയ്ക്ക്നേപ്പിൻ്റെ ഇല ഇട്ടതും വെള്ളം തിളപ്പിച്ച് അത് അതിൽ കുളിക്കുക ഒരിത്തിരി കല്ലുപ്പും ഇടും എന്നാൽ മേൽ വേദനയ്ക്ക് കുറേ സമാധാനം കിട്ടും അപ്പോൾ അങ്ങനെയാണ് കുളിയ്ക്കൽ പിന്നെ ചുമ ചുമ വന്നാൽ ആടലോടകം നല്ല പോലെ അരച്ച് മുട്ട അതിൽ പൊട്ടിച്ചിട്ട് അത് നല്ല പോലെ വറുത്ത് അത് കഴിക്കും അപ്പോൾ ചുമ മാറും പിന്നെ മുടി കൊഴിച്ചിലിന് നെല്ലിക്കയും ചെമ്പരത്തിപ്പൂവും ഇട്ട് നല്ല പോലെ എണ്ണ ഉണ്ടാക്കി അതിൽ അത് നല്ലപോലെ തലയിൽ തേയ്ക്കും അപ്പോൾ തണുപ്പ് കിട്ടും എല്ലാത്തിനും സുഖമാണ് മുടി ഉണ്ടാവാനും നല്ലതാണ് പിന്നെ വയറിളക്കം വന്നിട്ടുണ്ടെങ്കിൽ ഞാന് അടക്കാപ്പഴത്തിന്റെ ഇല അരച്ച് കുടിക്കലാണ് അപ്പോൾ അതും അവിടെ നിൽക്കും പിന്നെ വയറ് കംബ്ലിപ്പ് ഉണ്ടാവുമ്പോൾ അതിന് ഞാന് വെളുത്തുള്ളി കടുക് ഇഞ്ചി എല്ലതെമ്പാടെ നല്ലപോലെ തൾ കുത്തി ചതച്ച് അത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അതാണ് അത് കുടിച്ചാൽ മാറും പിന്നെ വയറ് ഇളക്കാനുള്ളത് അത് എന്താണ് ഈ കുങ്കുമത്തിൻ്റെ ഒരു ഇതുണ്ട് അതിന്റെ വേര് എടുത്തിട്ട് അരച്ച് അത് കഴിച്ചാൽ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാല് നല്ലപോലെ വയറിളകാത്തവര്ക്ക് നല്ലപോലെ വയറിളകും അതാണ് ഞാന് കഴിക്കൽ പിന്നെ അതേപോലെ പല്ലുവേദന വന്നാൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ വെള്ളം ചൂടാക്കി അതുകൊണ്ട് കുലുക്കുഴിയും അപ്പം പല്ലുവേദനയും നിൽക്കും ഇത് കൊണ്ടൊന്നും ഭേദമില്ലെങ്കില് മാത്രമേ ഞാന് ആശുപത്രിയില് പോകാറുള്ളു ഇത് സുഖം ഇതുവരെ അങ്ങനെ ആശുപത്രിയിൽ പോവണ്ട ആവശ്യം വന്നിട്ടില്ല ഇത് ഇങ്ങനെ കഴിക്കോണ്ട്